എം ജി എ ഹോട്ടലല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഓർഡർ ചെയ്തിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഞാൻ പറഞ്ഞ് തരാം എനിക്ക് ഇന്ന് ഇന്നും കൂടിയും വേണമായിരുന്നു ഇത് ആ ഓക്കെ ആ മന്തി ആ ബീഫ് ഡ്രൈ ഓക്കെ ചിക്കൻ ഫിഫ്ടി ഫൈവ് മീൻ പൊള്ളിച്ചത് ആ ഒരു ഒരു രണ്ട് പൊറോട്ട ആ അതുതന്നെ ആ ഗോതമ്പിൻ്റെ

ആ പിന്നൊരു വെജിറ്റബിൾ കുറുമയും വേണം ഓക്കെ ടേങ്ക് യു